ഞങ്ങടവിടെ പല ഉത്സവ പരിപാടികളൊക്ക നടക്കാറുണ്ട് അപ്പം വിദേശത്തുന്ന് ആൾക്കാരൊക്കെ വന്ന് കാണാറുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര ഈ മറ്റെ ഉത്സവങ്ങൾ കാണാനൊക്കെ ഭയങ്കര താൽപര്യമുള്ള ആൾക്കാരൊക്കെയാണ് അപ്പം ഇപ്പം വിനോദസഞ്ചാരികളൊക്കെ വന്നിട്ട് ഉത്സവങ്ങളും ഇപ്പം അവിടുത്തെ ഇപ്പോൾ തിരുനെല്ലി അമ്പലത്തിലെ ഉത്സവം നടക്കുന്നുണ്ട് വള്ളിയൂർക്കാവ് ഉത്സവം പിന്നെ ബത്തേരി ഉത്സവം അങ്ങനെ നമ്മുടെ വയനാട്ടിൽ നടക്കുന്ന കുറെ ഉത്സവങ്ങളൊക്കെയുണ്ട് അപ്പം ഇതൊക്കെ വിനോദ സഞ്ചാരികൾ കാണാറുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഉത്സവങ്ങളാണ് ഈ മെയിൻ ഉത്സവങ്ങൾ പിന്നെ തിറ മഹോത്സവമൊക്കെ നടക്കാറുണ്ട് അതായത് ചെറിയ ചെറിയ അമ്പലങ്ങളിലൊക്കെ തിറ മഹോത്സവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടെ കാണാൻ ഭംഗിയുള്ളതാണ് അതായത് തിറകൾ അതായത് ഓരോ തിറകൾ ഇങ്ങനെ കോലം കെട്ടി ആടുന്നതൊക്കെ ഇവർ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നതും എല്ലാ കാര്യങ്ങളും കണ്ട് അതിനെക്കുറിച്ച് എങ്ങനെയാണ് മനസിലാക്കുന്നത് മനസിലാക്കി ഓരോന്നെഴുതി അവർ അവരുടെ രീതിയിൽ എഴുതിയിട്ട് അവരത് അവിടെ ബുക്ക് ആക്കുക്കോ അങ്ങനത്തെ എന്തേലുമൊക്കെ പരിപാടി ചെയ്യുന്നുണ്ട് ഇപ്പം ഇതൊക്കെ അവർക്ക് താല്പര്യമുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെയാണ് മെയിനായിട്ട് നടക്കുന്ന ഉത്സവങ്ങളും തിറ മഹോത്സവങ്ങളും